ഒരു ദിവസം തന്നെ നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നത് വെള്ളം കുടിച്ചിട്ടാണ് വെള്ളം കുടിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇൻറ്റേർണലിയുള്ള ഇപ്പോള് നമ്മുടെ വയറ് ക്ലീന് ആകാനും വെറും വയറ്റില് വെള്ളം കുടിക്കുന്നത് തന്നെ വളരെ നമുക്ക് ആരോഗ്യത്തിനൊക്കെ വളരെ ഗുണപ്രദമായൊരു കാര്യമാണ് അതുപോലെ തന്നെ പ്രാഥമിക കർമ്മങ്ങൾ കുളിക്കല് ടോയ്ലറ്റ് യൂസിനും എല്ലാത്തിനും വെള്ളം വേണം നമ്മളെപ്പോലെ തന്നെ വീട്ടിലുള്ള ഓരോ അംഗങ്ങൾക്കും അത് അത്യാവശ്യമാണ് അത് കഴിഞ്ഞ് പിന്നെ അടുക്കളയില് ചെല്ലുമ്പോഴുള്ള കുക്കിങ്ങിനാണെങ്കിലും എല്ലാത്തിനും ചോറ് വെയ്ക്കാനും കറികള്ക്കും ഇപ്പം പച്ചക്കറികള് കഴുകാനും എല്ലാത്തിനും വെള്ളം അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഇപ്പോള് വീട്ടില് മൃഗങ്ങളുണ്ടെങ്കിൽ

പശു ആട് അങ്ങനെ മൃഗങ്ങള് എന്തെങ്കിലുമുണ്ടെങ്കിൽ അവയെ കുളിപ്പിക്കാനും അതേപോലെ അവയെ ക്ലീനാക്കാനും അവർക്ക് കുടിക്കാനും എല്ലാത്തിനും വെള്ളം അത്യാവശ്യമാണ് അതുപോലെ തന്നെ വീട്ടില് വാഹനങ്ങളുണ്ടെങ്കില് കാറ് ബൈക്ക് അങ്ങനെ എന്തെങ്കിലുമുണ്ടെങ്കില് അതേപോലെ അവ ക്ലീനിങ് ചെയ്യാനായിട്ട് അഴുക്കും കാര്യങ്ങളുമൊക്കെ പറ്റിക്കഴിഞ്ഞാല് കാറ് ബൈക്കൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വെള്ളം അത്യാവശ്യമാണ് അടുത്തത് വെള്ളത്തിൻ്റെ ഉപയോഗം വരുന്നത് കൃഷി കൃഷിയെന്ന് പറയുമ്പോൾ ഒരുപാട് പറമ്പും കാര്യങ്ങളും കൃഷിയുമൊക്കെയുള്ളവർക്ക് വെള്ളം ഒരുപാട് ആവശ്യമുണ്ട് ഇപ്പോള് എല്ലാം ഇൻറർലോക്ക് മുറ്റങ്ങളും കാര്യങ്ങളുമൊക്കെ ആയതുകൊണ്ട് ചെടിച്ചട്ടികള് നനയ്ക്കാൻ അതിനും വെള്ളം ആവശ്യമാണ് വെള്ളമില്ലെങ്കില് ചെടികള് വളറില്ല കരിഞ്ഞുപോകും അതേപോലെ കാർ പോര്ച്ചുകളില് ചെളിയും കാര്യങ്ങളുമൊക്കെയാകുമ്പോള് അതും നീറ്റാക്കി വൃത്തിയാക്കിയിടാൻ വെള്ളം അത്യാവശ്യമാണ് പിന്നെ അതേപോലെ നമ്മള് ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സുകള് കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാനും ഇപ്പോള് മാനുവലി ആണെങ്കിലും വാഷിംഗ് മെഷീനിലാണെങ്കിലും വെള്ളം അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഇപ്പോളൊരു ഫംഗ്ഷൻ എന്തെങ്കിലുമുണ്ടെങ്കില് തന്നെ നമുക്ക് എക്സ്ട്രാ കൂടുതൽ വെള്ളത്തിൻ്റെ ചെലവ് വരികയാണപ്പോള് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നു അല്ലെങ്കില് ഇപ്പോള് വീട്ടിലൊരു ഗസ്റ്റ് വന്നു ഒരു നാലഞ്ച് പേര് എക്സ്ട്രാ വന്നുകഴിഞ്ഞാൽ അപ്പോള് നമുക്ക് കൂടുതൽ വെള്ളത്തിൻ്റെ ചെലവ് വരികയാണ് ഡെയിലി നമുക്ക് യൂസ് ചെയ്യുന്ന വെള്ളത്തിനെക്കാളും ഡബിളായിട്ടുള്ള വെള്ളത്തിൻ്റെ ചെലവാണ് വരുന്നത് ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ യൂസേജ് കൂടും ഒരു നാല് പേരുള്ളൊരു വീട്ടിലിപ്പോള് ഒരു ഡെയിലി ഒരു ഒരു ഫുൾ ടാങ്ക് വെള്ളം അടിക്കുന്നുണ്ടെങ്കില് ഇപ്പോള് എക്സ്ട്രാ രണ്ട് പേരും കൂടി വന്നുകഴിഞ്ഞാൽ ചിലപ്പോള് മോർണിങ്ങും ഈവനിങ്ങും വെള്ളമടിക്കേണ്ടി വരും അങ്ങനെ ഇതെല്ലാമാണ് ഡെയിലി മെയിനായിട്ട് വെള്ളത്തിൻ്റെ യൂസുകള് വരുന്നത്